ആ അതെ എന്താണ് വിളിച്ചത് ഓ അ ആ ആ എന്താണ് വിളിച്ചത് ആ എങ്ങനെയാണ് ഫേമസ് ആയിട്ടുള്ളത് അല്ലേ മൊത്തത്തിൽ ഫേമസ് ആയിട്ടുള്ളതല്ലേ ആ ആ ഇപ്പോൾ കേരളത്തിൽ പ്രധാന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡ്ലിയും ചട്നിയാണ് അപ്പോൾ ഇഡ്ഡ്ലി ചട്നി പിന്നെ അതുപോലെ അതിന്റെ കൂടെ സാമ്പാർ ഉണ്ടാവും ഇഷ്ടമുള്ള എന്താണ് കോമ്പിനേഷൻ എന്നുവെച്ചാൽ ഇഷ്ടം ഉള്ളവർക്ക് കൂട്ടാം പിന്നെ അതുപോലെ പൊറോട്ട ഉണ്ടാവും പൊറോട്ട പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല ചില സ്ഥലങ്ങളിൽ രാവിലെ പൊറോട്ട ഉണ്ടാവുള്ളൂ കൂടുതലായിട്ടും വൈകുന്നേരങ്ങളിലാണ് പൊറോട്ട ഒക്കെ കൊടുക്കുന്നത് പിന്നതുപോലെ ദോശ ഉണ്ടാവും പിന്നെ ഈ ഉഴുന്ന് ദോശ എന്ന് പറയും അപ്പം അതുപോലെയുള്ള ദോശ അതിൻ്റെ കൂടെയും ചട്നിയും പിന്നെ അതുപോലെ ചിക്കൻ കറിയും ഉണ്ടാവും ചിക്കൻ കുറുമ അതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ പിന്നെ അപ്പം ഉണ്ടാവും വെള്ളയപ്പം എന്ന് പറയും അതുപോലെ വെള്ളയപ്പവും ഉണ്ടാവും അതുപോലെ വേറൊരു ദോശ പോലെ ഉള്ളൊരു അപ്പവും ഉണ്ടാവും അതിന് ഇങ്ങനെ കറി ചിക്കൻ കറി ചട്നി അത് ഏത് കോമ്പിനേഷനിലും വേണോ കൂട്ടാം അത് ഏത് കറി കൂട്ടിയാലും ടേസ്റ്റ് ആണ് പിന്നെയൊരു പ്രധാനപെട്ടൊരു ഉള്ളി കറി ഉണ്ട് ഉള്ളി കറിയും പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ ദോശയൊക്കെ കൂട്ടാം ഉള്ളി കറി നല്ല ടേസ്റ്റ് ആണ് ഈ നാടൻ ഭക്ഷണം എന്നൊക്കെ പറയും അപ്പോൾ അതുപോലുള്ള ഉള്ളി കറിയും പിന്നെ അതുപോലെ ചപ്പാത്തി ഉണ്ടാവും ചപ്പാത്തിയൊക്കെ റെഡിമെയ്ഡ് ആയിട്ടാണ് കിട്ടുക ഇപ്പം പുറത്തുനിന്ന് വാങ്ങിയിട്ട് പിന്നെ വെറുതെ ചുടുന്നതല്ലേ റെഡിമേയ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നെ അപ്പവും

ആ കോംമ്പോ ആയിട്ടാണ് ഉണ്ടാ ഇപ്പോൾ ദോ നിങ്ങൾ ദോശ മ ഇപ്പോൾ ഇഡ്ഡ്ലിയാണെങ്കിലും ഇഡ്ഡ്ലി വാങ്ങിയാൽ അതിൻ്റെ കൂടെ പിന്നെ കറിയും ഫ്രീ ആയിട്ട് കിട്ടും അതിപ്പോൾ വേറെ പൈസ കൊടുത്തു വങ്ങേണ്ടിയില്ല കറിയും അതിൻ്റെ കൂടെ തന്നെ കോംമ്പോ ആയിട്ട് കിട്ടുന്നതാണ് പിന്നെ പുട്ടും കടല കറിയും ഉണ്ട് അതും ഒര് ഒരു കോംമ്പോ തന്നെയാണ് പിന്നെ ഇഷ്ടം ഉള്ളവർക്ക് അത് പിന്നെ ഇപ്പോൾ ഏതൊരു കടയിൽ ചെന്നാലും ഇപ്പോൾ ഏതൊരു റെസ്റ്റോറന്റിലും ഇങ്ങനത്തയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കിട്ടുന്നത് പിന്നെ കൂടുതലും ഇഡ്ഡ്ലി ഒന്നും ഇപ്പം രാവിലെ കാണുള്ളൂ പിന്നെ അതുപോലെ അപ്പവും ചിക്കൻ കുറുമയും ഉണ്ടാവും പിന്നെ അതുപോലെ വെജിറ്റെബിൾ കുറുമയുണ്ട് ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ വെജിറ്റെബിൾ കുറുമയുണ്ടാവും ഇപ്പം വെജ് അല്ല നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കൻ കുറുമയും അതുപോലെ ഫിഷിൻ്റെ ഉണ്ടാവും ഫിഷ് വര ഫിഷ് വരട്ടിയത് എന്നൊക്കെ പറയും അതും ഉണ്ടാവും പിന്നെ ആ അതുപോലുള്ള ഐറ്റംസ് ആണ് ഉണ്ടാവുക പിന്നെ വെജിറ്റേബിൾസ് ആണെങ്കിൽ കുറുമയാണുണ്ടാവുക വെജിറ്റെബിൾസ് കുറുമ അല്ലെങ്കിൽ ചട്നി ഉണ്ടാവും കടലക്കറി ഗ്രീൻ പീസ് ക ഗ്രീൻ പീസ് കുറുമ ഉണ്ടാവും അങ്ങനെയുള്ളൊരു കറികളൊക്കെ അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇഡ്ഡ്ലി ദോശ അപ്പം അങ്ങനെ ആ രീതിയിൽ പിന്നെ ഒ ഒരു നെയ് പത്തൽ എന്ന് പറയും ഈ മുസ്ലീംസിൻ്റെ ആ മുസലീംസിൻ്റെയൊരു പ്രത്യേക ഒരു ഒരു നെയ് പത്തലുണ്ട് അതിന്നും കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് അത് പറയുക കുറേ പേർ ചോദിച്ച് വിട്ട് ചോദിച്ചിട്ട് വരാറുണ്ട് പിന്നെ അതുപോലെ ഓട്ടു പത്തിരിയും കാല് കറിയും പോത്തിൻ്റെ കാലില്ലേ അതിന്റെ കാല് കറിയും അതൊക്കെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടം കൂടുതൽ റേറ്റ് എന്ന് പറയുന്നത് വലിയ റേറ്റ് ഒന്നുമില്ല ഒരു നൂറ് ഇരുനൂറ് കൂടി വന്നാൽ ഒരു ഇരുനൂറ് രൂപയേ വരുള്ളൂ പിന്നെ ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പം ആൾ കൂടുംതോറും പിന്നെ ഐറ്റംസും കൂടുമല്ലോ അപ്പോൾ റേറ്റ് കൂടും അല്ലാതെ ഇപ്പോൾ ഒന്നോ രണ്ടോ ആൾകാർക്കൊക്കെയാണെങ്കിൽ നൂറോ ഇരുനൂറോ രൂപയൊക്കെ ആവുള്ളൂ പിന്നെ കുറേ പേർ ഓർഡർ പെട് ഒരു ബുക്ക് ചെയ്തിട്ട് ഓർഡർ വരുവാണെങ്കിൽ പിന്നെ അത്യാവശ്യം റേറ്റ് കുറച്ചിട്ട് തരും ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വാങ്ങുന്നതല്ലേ അപ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും ബുക്ക് ചെയ്യുന്നതാണെങ്കിൽ ബുക്ക് ചെയ്യാതെ വരുന്നതാണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല ബുക്ക് ചെയ്യുന്നതാണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും എന്നാൽ നിങ്ങളിനി വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നോക്കിയിട്ട് ബുക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ മതി ആ എന്നാൽ ഓക്കെ ആ